അഴിമതി എന്ന് പറയുമ്പോൾ ഓരോ കൊല്ലവും ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് കയ്യിലുള്ളവർക്ക് ഓരോ കൊല്ലം മുപ്പതിനായിരം രൂപ വരെ അതത്രയാവുന്നതുവരെ ചികിത്സ സൗജന്യമായിട്ട് കിട്ടും ആ മുപ്പതിനായിരം രൂപ സർക്കാര് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് കൊടുക്കും പക്ഷെ അത് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകണം അങ്ങനെ എന്തോ ഉണ്ട് അപ്പോൾ എൻ്റെ റിലേറ്റീവ് ഇതേപോലെ ഹോസ്പിറ്റലിൽ എന്തോ ചെക്കപ്പിന് വേണ്ടി വന്നതാണ് അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേപോലെ ചെക്കപ്പിന് വന്നപ്പോൾ ഒരു ഇപ്പോൾ കുറച്ച് കൂടുതൽ കോംപ്ലിക്കേഷനാണു അപ്പോൾ അഡ്മിറ്റാകണം എന്ന് പറഞ്ഞു അഡ്മിറ്റാവണമെന്ന് പറയണതിനു മുമ്പ് കുറച്ച് മരുന്നും കാര്യങ്ങളും അതുപോലെ ഗ്ളൂക്കോസ് കയറ്റലും ഒക്കെയായിട്ട് ആദ്യമേ കുറച്ച് ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫീസ് അവര് അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് പറയണത് അഡ്മിറ്റാവണം എന്ന് അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം മൂന്ന് ദിവസം അഡ്മിറ്റായപ്പോൾ ഈ കാശ് നമ്മളവിടെ ഫീസടച്ചത് നമുക്ക് തിരിച്ച് തരണം പക്ഷെ അത് അവര് പെട്ടന്ന് തിരിച്ച് തരാൻ കൂട്ടാക്കിയില്ല അപ്പോൾ അങ്ങനെ അതേപോലെ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് കംപ്ലൈന്റ്റ് ചെയ്യാം അങ്ങനെ കംപ്ലൈന്റ്റ് ചെയ്തു കളക്ടർ വിളിപ്പിച്ചു ഇവരെ ഒരു റെപ്രെസെന്റേറ്റീവുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പേര് ഹോസ്പിറ്റലിൻ്റെ ഒരു റെപ്രെസെന്റേറ്റീവുണ്ടായിരുന്നു അപ്പോൾ ഇന്ന ഇത്ര ദിവസത്തിനുള്ളില് നമുക്ക് നമുക്ക് കിട്ടേണ്ട അതേ ക്യാഷ് തിരിച്ച് കിട്ടണം എന്ന് പറഞ്ഞ് കളക്ടറ് റെക്കമെന്റ് ചെയ്തിരുന്നു അപ്പോൾ അതുപ്രകാരം നമുക്ക് ക്യാഷ് തിരിച്ച് കിട്ടി ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആരോഗ്യ മേഖലയിൽ പൊതുവേ ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തവര് പൊതുവെ പറ്റിക്കപ്പെടുകയാണ് ചെയ്യണത് അപ്പോൾ ഇതിനെക്കുറിച്ച് വേണ്ടത്ര ഒരു അവബോധം ആളുകൾക്ക് ഇപ്പോഴും ഇല്ല എന്താണെന്നുവെച്ചാൽ അത് പഠിപ്പിൻ്റെ പോരായ്മ കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ പിന്നെ വല്യ വല്യ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് വല്യ വല്യ ആൾക്കാരാണെന്നുള്ളൊരു തോന്നൽ വരുന്നത് കൊണ്ടായിരിക്കാം എന്തായാലും ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്